ഹലോ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണോ ആ ഒരു ഹെൽപ്പ് വേണമായിരുന്നു ഒരു ഓട്ടം പോവാൻ വേണ്ടി വിളിച്ച ആയിരുന്നു നിങ്ങള് ഫ്രീ ആണോ ആ ഞാൻ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ആണ് ഉള്ളത് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെഡിക്കൽ കോളേജില് പോകണമായിരുന്നു

നിങ്ങൾ എത്താൻ ലേറ്റ് ആകുമോ ഞങ്ങള് വേറെ വിളിക്കണമെങ്കിൽ

ബിസി ആണോ താൻ

ആ അപ്പം നമുക്ക് ഇല്ല ഇല്ല അമ്മ ഉണ്ട് കൂടെ അമ്മ ഉണ്ട് അമ്മ ഉണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജില് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ജസ്റ്റ് മിനിറ്റ് അമ്മയെ വീട്ടിൽ കൊണ്ടാക്കീട്ട് എനിക്ക് വേറെ സ്ഥലത്ത് ഒക്കെ പോവാൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റിംഗ് ചാർജും കാര്യങ്ങൾ ഒക്കെ എങ്ങനെ ആയിരിക്കും ആ ഇവിടുന്ന് ഇപ്പോൾ ബീച്ചിൻ്റെ അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്ര ആവും ആണല്ലേ ആ അപ്പോൾ എനിക്ക് ഇവിടുന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി ഒക്കെ വരും അപ്പോൾ അതിൻ്റെതായ ചാർജ് പറഞ്ഞാല് ഓക്കെ ഓക്കെ ഈ ജസ്റ്റ് ക്യാഷ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാല്ലോ അല്ലേ

ടൈമും കാര്യങ്ങൾ ഒന്നും ഇല്ല നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജില് പോയി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അവിടുന്ന് എപ്പഴാണ് ഇറങ്ങുകാന്ന് അറിയില്ല ഒര് പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി പോവുന്നത് ആണ് അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്നത് എപ്പഴാന്ന് അറിയില്ല ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ വീട്ടിൽ ആക്കണം അങ്ങനത്ത കുറച്ച് പരിപാടികൾ ഒക്കെ ഉണ്ട് ഓക്കെ ഓക്കെ എത്താൻ ആകുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി